കുട്ടനാട്ടിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് വള്ളംകളി എന്ന് പറയുന്നത് വള്ളംകളി എന്ന് പറയുമ്പം വള്ളംകളി വലിയ വള്ളം ചുണ്ടൻ വള്ളം കൊതുമ്പ് വള്ളം ചെറുവള്ളം ചുരുളൻ വള്ളം എന്നീ വള്ളങ്ങളാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഓണത്തിനുള്ള ചെറു വള്ളംകളി ആ ചെറു വള്ളംകളി എന്ന് പറയുമ്പം ചെറിയ ഞങ്ങളുടെ ആറുകളിൽ ഇട്ടാണ് ആ ച വള്ളം കളിക്കുന്നത് അപ്പോൾ ഈ ചെറിയ വള്ളംകളി ചെറിയ വള്ളത്തിലെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ വള്ളത്തിൽ ഒരാളേ ചെറിയ വള്ളത്തിൽ ഒരാളേ കയറത്തുള്ളൂ അതിനേക്കാൾ ഇത്തിരി വലിയ വള്ളമാണെങ്കിൽ രണ്ട് പേർ കയറും അങ്ങനെയാണ് ചെറു വള്ളംകളി കളിക്കുന്നത് അത് കളിച്ച് അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ഉത്സവം പോലെയാണ് അത് അത് കൂടാതെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു വള്ളംകളി എന്ന് പറയുന്നത് ഞങ്ങളുടെ പുന്നമടയിലാണ് പുന്നമട പുന്നമട നെഹ്റു ട്രോഫി ആണ് അവിടെ ആ പോയെങ്കിൽ ചെറുവള്ളങ്ങളും വലിയ വള്ളങ്ങളും ചുരുളൻ വള്ളങ്ങളും ചുണ്ടൻ വള്ളങ്ങളും എല്ലാവരും മത്സരത്തിനുണ്ട് ഈ വലിയ വള്ളത്തിലൊക്കെ നമ്മൾ ഈ പിന്നെ ചുണ്ടൻ വള്ളത്തിൽ ഒരു പത്ത് അറുപത് പേരാണ് നമ്മൾ തുഴയുന്നത് ആ അറുപത് പേർ തുഴ ആ അറുപത് പേർ അറുപത് പേരിൽ ഒരു അമ്പത്തി നാല് പേർ തുഴയും പിന്നെ ഒരു ബാക്കി വരുന്ന ഒരു അഞ്ചാറ് പേർ അത് നമ്മൾ പങ്കായം പിടിക്കാനും പിന്നെ അത് പിന്നെ നടുക്ക് നിന്ന് കുത്തി പാടാനും വേണ്ടി ഒരു മൂന്നാല് പേരൊക്കെ നിൽക്കും അങ്ങനെ നമ്മൾ ഭ അതൊരു ഭയങ്കര മത്സരം ആണ് നാല് വള്ളങ്ങൾ തമ്മിലാണ് മത്സരം നാല് വള്ളങ്ങൾ തമ്മിൽ ആ നാല് വള്ളങ്ങൾ തമ്മിൽ ജയിക്കുന്ന ജയിക്കുന്ന അത് വെച്ചാണ് നമ്മൾ എടുക്കുന്നത് അവസാനം ജയിക്കുന്ന അവർക്കാണ് നെഹ്റു ട്രോഫി കിട്ടുന്നത് അത് ഭയങ്കര ഒരു നമുക്കൊരു ഭയങ്കര ഒരു ഉത്സവമാണ് കുട്ടനാട്ടുകാരും അല്ല എല്ലാവരും ആ വള്ളംകളി കാണാനായിട്ട് നമ്മൾ എത്ര മഴയാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത് പോയി നമുക്ക് അത് നമ്മൾ ശരിക്ക് നമുക്ക് കാണാനൊന്നും ഒക്കത്തില്ല ഭയങ്കര തിരക്കായിരിക്കും ഓരോരുത്തരൊക്കെ തെങ്ങിന്റെ മണ്ടയിലും പിന്നെ ബോട്ടിലും ഒക്കെ നിന്നാണ് അത് കാണുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഉത്സവമാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് ഞ അത് ഞങ്ങൾക്ക് പിന്നെ അതിൽ നമുക്ക് ഒത്തിരി വിശിഷ്ടാതിഥികളൊക്കെ വന്ന് കാണാനായിട്ട് അത്രയ്ക്കും അത് മനോഹരമാണ് ആ വാ വള്ളം ആ വെള്ളത്തിൽക്കൂടെ വരുന്നത് കണ്ടാൽ വേറെ ഏത് കലയേക്കാളും നല്ല ഒരു ഭംഗിയാണ് നമുക്ക് അത് പിന്നെ അത് നമുക്ക് ഒന്നും അറിയാൻ മേലാത്ത തുഴക്കാരും അല്ലെ വള്ളമാണെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കും അത് ജ ജയ് നമ്മുടെ സ്വന്തം വള്ളം പോലെയാണ് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്നത് ജയിക്കണം ഇന്നത് ജയിക്കണം എന്നും പറഞ്ഞ് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കും അത്രയ്ക്ക് നല്ല ഒരു കളിയാണ് അത് നമ്മൾ അത് ക വെള്ളമാണെങ്കിലും മഴയാണെങ്കിലും വെള്ളപ്പൊക്കം ആണെങ്കിലും ന നമ്മൾ അത് വള്ളംകളി നമ്മൾ അത് കാണാൻ പോവുകയും അത് കാ കാണുക കാണുകയും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ ചെയ്യും അതുപോലെ തന്നെ അത് അതിന്റെ ഈ വള്ളംകളി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് ഒരു രണ്ട് മാസത്തോളവും അതി നമ്മൾ ട്രൈ ഇത് ചെയ്യും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാണ് ഈ നമ്മൾ ഈ വള്ളംകളിയിലെ ആ വള്ളംകളി ഇറങ്ങുന്നത് ഒരോരുത്തർക്ക് അത് നമ്മൾ സ്പോൺസർ ചെയ്യുവാണ് ആ വള്ളംകളി അത് നമുക്ക് പിന്നെ അത് അവർ അവർ ഒര്ഉ ഒന്ന് രണ്ട് മാസം അവർ നന്നായിട്ട് നല്ല ഒരു ഓരോരുത്തരും സ്പോൺസർ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ തുഴഞ്ഞാലേ നമുക്ക് ആ വള്ളംകളി നമുക്ക് വിജയിക്കാൻ ഒക്കത്തുളളൂ അതിന് നല്ല ചിലവുമാണ് പിന്നെ അതിന് നല്ല ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് നല്ല ആരോഗ്യത്തോടെ നിന്നാലേ നമുക്ക് ആ വള്ളംകളി നമുക്ക് നന്നായിട്ട് തുഴഞ്ഞ് കയറാൻ ഒക്കത്തുള്ളൂ ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് ഈ വള്ളംകളി പിന്നെ വരുന്നത്